സമൂഹത്തിലെ പല കുറ്റങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്ത് വരാത്തതിൻ്റെ പ്രധാന കാരണം അവരവരുടെ ഉണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകളും പല ഇൻഫ്ലുവൻസും ഇന്ന് പലർക്കുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം മൂലവും പോലീസിൻ്റെ സപ്പോർട്ട് മൂലവും അങ്ങനെ പല കുറ്റകൃത്യങ്ങളും ഇന്ന് പുറത്തേക്ക് വരുവാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ പല ഓഫീസുകളും കയറി ഇറങ്ങി അവർക്കുണ്ടാകുന്ന സാമ്പത്തിക തിൻ്റെ കാരണം മൂലവും സമ്പത്ത് ഉണ്ടെങ്കിലെ എല്ലാവർക്കും എന്തും ആകാം എന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടൊക്കെയാണ് ഇതൊന്നും പുറത്ത് വരുവാൻ സാധിക്കാത്തത് പണം ഉള്ളവൻ കൈവപ്പുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ പണവും സ്വാധീനവും ഒന്നുണ്ട് ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ പലതും മൂടി വെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളപ്പം സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊന്നും അവരുടെ കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുവരികയും അല്ലാത്തവരുടെ പണവും സ്വാധീനവും രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അത് ഒരിക്കലും പുറത്തു കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് വാർത്താ മാധ്യമങ്ങള് വർത്തകളുടെ വിവരങ്ങളും പ്രാധാന്യം വില ഇരുത്തുന്നതും പൊതു ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ച് കഴിഞ്ഞാല് ഇന്നും ടി വി വഴിയായും പത്രമാധ്യമങ്ങൾ വഴിയായും പിന്നെ ടെലിഫോണുകൾ വഴിയായും പല അത് പല തരത്തിലുള്ള മാധ്യമങ്ങൾ വഴിയായിട്ടും ഒക്കെ പുറത്തേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംബന്ധിച്ച് കഴിയുമ്പോൾ അത് അന്തി ചർച്ചയായിട്ട് മണിക്കൂറുകളോളം നീട്ടി പിടിച്ച് ഓരോ ചർച്ചകൾ ചെയ്യും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയും ഉള്ള കാര്യങ്ങൾ ഇല്ലാതെന്ന് നടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതുണ്ട് സോ അങ്ങനെ പല വ്യക്തികള് ഇപ്പം ഒരു സമ്പന്നനായ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതും കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നില്ല കാരണം കൂടുതൽ പേരിലേക്ക് എത്തിക്കാത്തതിൻ്റെ മെയിൻ കാരണം മെയിൻ ഇതായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവർക്ക് സാമ്പത്തികം ഉള്ളതുകൊണ്ട് അവരുടെ ഒരു കുറ്റങ്ങളും പുറത്ത് അറിയപ്പെടുന്നില്ല പക്ഷെ ഒരു സാധാരണക്കാരനായി ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അവരുടെ കുറ്റങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും അറിയുകയും അത് ചെറിയൊരു കുറ്റങ്ങളാണെങ്കിൽ അത് പെരിപ്പിച്ച് വലുതാക്കി അദ്ദേഹത്തെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കുവാനായിട്ട് വരെ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സമൂഹം തെറ്റ് തെറ്റേ ചെയ്യാത്ത മനുഷ്യന് തെറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ച് ഏറ്റവും വലിയ കുറ്റവാളിയായിട്ട് അതിനെ സ്ഥാപിക്കും അങ്ങനെ ഈ വാർത്താ മാധ്യമങ്ങളിലും അന്തി ചാനലുകളിലും ഇന്ന് ചർച്ച് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പത്തേക്കും കുറ്റം ചെയ്യുന്നവൻ അകത്താണ് വലിയവനാകുകയും കുറ്റം ചെയ്യാത്തവൻ കുറ്റക്കാരനാകുകയും കുറ്റക്കാരനാകുകയും സമൂഹത്തില് അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാതെയും വരുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പലപ്പോഴും ഈ മാധ്യമങ്ങൾ അതിനൊക്കെയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് സമൂഹത്തില് അത് കാരണം മനുഷ്യൻ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാവെന്നും അതിന് വേണ്ടി കഞ്ചാവ് മയക്കു മരുന്ന് ലഹരി വസ്തുക്കൾ മദ്യം ഇതൊക്കെ വിറ്റും ഒത്തിരി സമ്പത്തുണ്ടാക്കിയിട്ട് അവര് ഭയങ്കര പണം ആക്കുകയും ആ പണം മൂലം ആ പണം വലുതാക്കി ഉപയോഗിച്ചുകൊണ്ട് ആ പണം കയ്യിൽ വെച്ചുകൊണ്ട് അവരുടെ അവര് പണം കൊടുത്ത് പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് നീതിമാനായിട്ട് നല്ല സത്യസന്ധതമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് സമൂഹത്തില് ഒരു വിലയും ഇല്ലാതായി തീരുകയും ആ സത്യസന്ധത ഉള്ള വ്യക്തികള് പിന്നെ സമൂഹത്തില് ജീവിക്കാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്യുവാണ് അങ്ങനെ അങ്ങനെ സത്യസന്ധതയോട് കൂടെ ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ ഭാഗത്തുന്ന് ചെറിയ കുറ്റങ്ങളോ തെറ്റുകളോ കുറവുകളോ വന്നു കഴിയുമ്പോൾ അതൊരു വലിയ കുറ്റങ്ങളും കുറവുകളായിട്ട് കാണുകയും അവരെ സമൂഹത്തില് ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശരിക്കുള്ള കുറ്റങ്ങളും കുറ്റകൃത്യം ചെയ്യുന്നവര് ഇവൻ പോലും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവര് മറ്റ് പാർട്ടി സ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വ്യക്തികളായി തീരുകയും ആ പാർട്ടികൾ ആ കുറ്റവാളികളെ അതിൽ നിന്ന് ഒഴിവാക്കുകയും അവരെ പിന്നെ കുറ്റം ചെയ്യാത്ത വ്യക്തികളാകുകയും അക്കിയും കൊണ്ടുവരികയും ചെയ്യുന്നു ഏത് പാർട്ടിയിൽ പെട്ടവനാണോ ആ പാർട്ടി പാർട്ടിക്കാരും അവരുടെ ആൾക്കാരും പണമോ ഒക്കെ ഒഴുക്കി അവരെ കുറ്റക്കാരല്ലാതാക്കി തീർക്കുകയും ചെയ്യുന്നു സാധാരണയായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്കാവുമ്പഴത്തേക്ക് അവര് കുറ്റക്കാരല്ലാതെ കുറ്റം ചെറിയ കുറ്റങ്ങൾ ചെയ്യുവാൻ കുറ്റം ചെയ്തിട്ടില്ലേൽ പോലും കുറ്റക്കാരായിട്ട് അവരെ ചിത്രീകരിക്കുകയും മാധ്യമങ്ങളും പിന്നെ പൊതു സമൂഹങ്ങളും വാർത്താമാധ്യമങ്ങളും അന്തി ചർച്ചകളും പിന്നെ ഈ ചാനലുകളിലും വാട്സആപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അവരുടെ പേരുകള് വരികയും അവരെ മോശക്കാരാക്കിയും സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാതെ അവര് വെന്ത് നീറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നന്മ ചെയ്യുന്നവർക്ക് ജീവിക്കാൻ പറ്റാതെയും തിന്മ ചെയ്യുന്നവർക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തുള്ള വിപത്തുകളെല്ലാം കണ്ടറിഞ്ഞ് ജീവിക്കുവാനായിട്ട് പൊതു സമൂഹം മനസ്സിലാക്കുകയും നേരിൻ്റെ വഴിയിലൂടെ വരികയും ചെയ്യുവാനായിട്ട് ഓരോ സ് വ്യക്തികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു അതുപോലെ എപ്പഴും മനുഷ്യൻ ചിന്തിക്കണം സത്യം ഒരിക്കലും മറച്ചു വെക്കുവാൻ സാധിക്കത്തില്ല സത്യം എപ്പഴാണേലും പുറത്ത് വരും അപ്പം ആ പുറത്ത് വരുമ്പോഴത്തേക്ക് നീതിമാനായിട്ടുള്ള മനുഷ്യന് പുറത്ത് വരുമ്പഴത്തേക്ക് സമൂഹത്തിൽ അവരെ സ്വീകരിക്കുവാനായിട്ട് നന്മയുള്ള ഒരു പറ്റം ആൾക്കാർ ഉണ്ടാകുവാനായിട്ട് ഇനിയുള്ള കാലഘട്ടങ്ങൾ അതിന് ഉപയോഗിക്കുകയും ചെയ്യണം അതിന് വേണ്ടി വാർത്താമാധ്യമങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഈ നന്മ ചെയ്ത വ്യക്തികളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പൊതുജനങ്ങളെ വ്യക്തികളാക്കി തീർക്കുവാനായിട്ട് അവർക്കൊക്കെ സാധിക്കുകയും ചെയ്യണം അല്ലാതെ നന്മ ചെയ്ത നന്മ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തെയും കുറ്റങ്ങളും പിന്നെ ഒക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് സമ്പത്തിൻ്റെ സ്വാധീനം മൂലം അവര് വീണ്ടും സമൂഹത്തിന് ഒരു തലവേദനയായി തീരുകയും അവരെയെല്ലാം തീരുകയും വീണ്ടും അവര് കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ഈ ഒരു ഇത് മൂലം സമൂഹത്തില് സമാധാനവും ശാന്തിയും ഇല്ലാതെ ലോകം മുന്നോട്ട് പോകുകയും ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള ഇതിലൊന്നും പോകാതെ നന്മ ചെയ്യുന്ന ആ വ്യക്തികളെയും നന്മയുടെ പാതയിലേക്ക് തിരിച്ച് കൊണ്ടുവരുവാനായിട്ട് സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിനു വേണ്ടി എല്ലാ വാർത്താമാധ്യമങ്ങളും എല്ലാ ചാനലുകളും അതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുവാൻ സാധിക്കുകയും ചെയ്യട്ടെ അങ്ങനെ സമൂഹത്തിലെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കുറഞ്ഞ് വന്ന് നല്ല രീതിയില് സമൂഹം നല്ലതായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും അങ്ങനെ എല്ലാ വ്യക്തികളും നന്നായിട്ട് ജീവിക്കുവാനായിട്ടും ഒക്കെ സാധിക്കുകയും ചെയ്യും അതിന് വേണ്ടി ഈ ഇന്നത്തെ ഈ മെ എല്ലാ മനുഷ്യരിലേക്കും ഫാസ്റ്റായിട്ട് എത്തിക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് വാർത്താമാധ്യമങ്ങൾ അല്ലെങ്കില് സർവ മാധ്യമങ്ങളും അതിന് വേണ്ടി ഇന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഫേസ്ബുക്ക് ഇമെയില് ഫാസ്റ്റ് ഗ്രോയിങ് ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും അപ്പം അതിലെല്ലാവരും അതിലൂടെ നന്മ ചെയ്യുന്ന വ്യക്തികളെ കണ്ടെത്തി നന്മ ചെയ്യുവാനായിട്ടും നന്മ ഉള്ളവരായി തീരുവാനായിട്ടും നന്മയിലേക്ക് വളരുവാനുട്ടൊക്കെയായിട്ട് അതിന് ഈ വാർത്താമാധ്യമങ്ങള് അതിന് പ്രയോജനപ്പെടുത്തുകയും അതു പൊതുജനങ്ങളിലേക്ക് എത്തുകയും അതുവഴി പൊതുജനങ്ങള് അങ്ങനെ നല്ല വ്യക്തികളായി തീരികയും സമൂഹം നല്ലതായിട്ട് തീരുകയും അങ്ങനെ സമാധാനത്തിൻ്റെയും നല്ല ശാന്തിയുടെയും ഒക്കെ ഒരുമയുടെയും ഒക്കെ ഉള്ള ഒരു സമൂഹമായി തീരുവാനായിട്ട് സാധിക്കുകയും മനുഷ്യർക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെയൊള്ളൊരു സമൂഹം ആയിട്ട് നമ്മുടെ ഈ സമൂഹം വളരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ